ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പുസ്തകം വിശുദ്ധ ബൈബിളാണ് ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് ബൈബിൾ വായിക്കും തോറും ഞാൻ എങ്ങനെയൊക്കെ ജീവിക്കണം എന്നുള്ള ബോധ്യങ്ങളും ഈശ്വരൻ എന്നോട് സംസാരിക്കുന്ന ഒരു അവസ്ഥയുമാണ് ഞാൻ ബൈബിളിലൂടെ കണ്ടെത്തുന്നത് എനിക്ക് ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ള ഊർജ്ജമെല്ലാം കിട്ടുന്നത് വിശുദ്ധ ബൈബിളിൽ നിന്നാണ് ഏതെല്ലാം കൈസസകൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും അതിനെയെല്ലാം അന്വേഷിച്ച് ഇറങ്ങി ചെല്ലുന്നത് ഞാൻ ബൈബിളിലേക്കാണ് അതിൻ്റെ ഓരോ അധ്യായം വായിക്കും തോറും ഞാൻ എങ്ങനെയാണ് ഓരോ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഞാൻ സമൂഹത്തിൽ മനുഷ്യരുമായിട്ട് ഇടപെടേണ്ടതെന്നും പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്നും പോസിറ്റീവ് എനർജി ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്ന ഏറ്റവും വഴി ഏറ്റവും നല്ല വഴി ബൈബിളിലൂടെയുള്ള ഒരു തീർത്ഥ യാത്രയാണെന്നും എനിക്ക് മനസ്സിലായി മാത്രമല്ല നമ്മുടെ സമൂഹ ജീവിതത്തിൽ മനുഷ്യന് നന്മ ചെയ്യാതെ ഈശ്വരനെ കണ്ടെത്താൻ സാധ്യമല്ല എന്നുള്ള വലിയ ഒരു തിരിച്ചറിവും എനിക്കുണ്ടായി മനുഷ്യന് നന്മ ചെയ്ത് കൊണ്ട് മാത്രമേ ഈശ്വരനെ പ്രസാദിപ്പിക്കാൻ സാധിക്കു ഈ ഈ ലോക ജീവിതത്തിന് അപ്പുറം മറ്റൊരു ജീവിതമുണ്ടെന്നും ആ ജീവിതം ശോഭനമാകണമെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ നന്മ ചെയ്ത് കൊണ്ട് മാത്രമെ മനുഷ്യന് നന്മ ചെയ്ത് കൊണ്ട് മാത്രമെ ഈശ്വരനെ പ്രസാദിപ്പിക്കാൻ സാധിക്കു എന്നും വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരി നല്ല ജീവിതം നയിക്കണമെങ്കിൽ നന്മ സ്വരൂപനെ പുണരണമെങ്കിൽ ബൈബിളിലൂടെ മാത്രമെ സാധിക്കു എന്ന് ഞാൻ വിശ്വസിക്കുന്നു